കൃഷിയിടത്തിൽ ചിലവഴിക്കുന്ന സമയമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രാവിലെ ഒരു കൃത്യമായിട്ട് അങ്ങനെ ഒരു സമയം പറയാൻ പറ്റൂല്ല ഓരോ സമയത്തും നമ്മളിപ്പം കൃഷിയിടത്ത് പോയിക്കഴിഞ്ഞാൽ ചില സമയം കൂടുതൽ വേണ്ട സമയങ്ങളുണ്ടാവും ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് സമയമേ വേണ്ടി വരൂ അങ്ങനെ മണ്ണിന് വളം ചെയ്യാനുള്ള സമയങ്ങളിൽ കൃഷികൾക്ക് വളം ചെയ്യാനുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ സമയം വേണം അല്ലാതെ വെള്ളം നനയ്ക്കാനും മാത്രമായിട്ടാണെങ്കിൽ കുറച്ച് സമയമേ വേണ്ടൂ അങ്ങനെ രാവിലെ കുറച്ച് സമയം ഉപയോഗിക്കും അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം വെയിലൊക്കെ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയം ഉപയോഗിക്കും രാവിലെ പോയി ഇപ്പം പുതിയതായിട്ട് നട്ട വിത്തുകൾ എല്ലാം മുളച്ച് വരുമ്പം രാവിലെ തന്നെ അതിന് നിർബന്ധമായിട്ടും വെള്ളം നനച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ വൈകുന്നേരങ്ങളിലാവു മ്പോൾ അതിൻ്റെ ഇടയിലുള്ള കള പറിക്കൽ പിന്നെ വെള്ള പിന്നെയും വെള്ളം നനക്കൽ വളം ചെയ്യൽ അതൊക്കെ വൈകുന്നേരം ചെയ്യുന്ന പണികളാണ് പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ കൃഷി ആരോഗ്യപരമായിട്ട് കൃഷി എങ്ങനെയാണ് ഉപകാരപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പം നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങുന്ന വിഷം അടിച്ചുള്ള പച്ചക്കറികൾ നമ്മൾക്ക് ഉപയോഗിക്കണ്ട ആവശ്യമില്ല ഒരുപാട് ഈ പയർ വഴുതനങ്ങ വെണ്ടക്ക എന്ന് വേണ്ട അങ്ങനെയുള്ള അത്യാവശ്യ പച്ചക്കറികളെല്ലാം വീട്ടിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ആരോഗ്യം ആരോഗ്യത്തിനേയും വരും തലമുറേനേയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്ക് തീരെ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഉള്ളി കാരറ്റ് അതൊന്നും ഇപ്പം നമ്മളെ കാരറ്റ് ഒക്കെ നമ്മളെ കാലാവസ്ഥക്ക് പറ്റുന്ന കൃഷി അല്ല അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉപയോഗിച്ചുകഴിഞ്ഞാൽ വാഴയൊക്കെ വാഴ ഏത്തപ്പഴം അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വിഷം ഇല്ലാണ്ട് വിഷം അടിക്കാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ വരും തലമുറേൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും എല്ലാം ഒരുപാട് ഉപകാരപ്രദമായിട്ടാണ് തോന്നിയിട്ടുള്ളത്